ഹലോ എന്തൊക്കെ ഉണ്ട് മെനു

എനിക്ക് അഞ്ച് കരിമീൻ ഫ്രൈ വേണേ ഒരു കരിമീൻ ഫ്രൈക്ക് എത്ര രൂപയാണ് അത് ഇത്തിരി കൂടുതൽ ആണല്ലോ കരിമീൻ്റെ വലുപ്പം എത്ര കാണും മീൻ വലുപ്പം എത്ര കാണുമെന്ന് ഓക്കെ എന്നാൽ ഒരു അഞ്ചെണ്ണം വേണേ ആ ഓക്കെ ഓക്കെ ആ വേറെ എന്തുണ്ട് ആ ഓക്കെ വേറെ എന്തൊക്കെയാണ് ഉള്ളത് ഓക്കെ വരാൽ ഉണ്ടോ വരാൽ കറി മതി എന്തെങ്കിലും കറി മതി വീട് അച്ചൻകോവിൽ അച്ചൻകോവിലിന് അടുത്തായിരുന്നു വൈകിട്ടൊരു ആറ് മണി ഒക്കെ ആവും ഒരു ആറ് മണി ആറര ആ ഗൂഗിൾ പേ ചെയ്ത് ബിരിയാണി ഉണ്ടോ ആ ഓക്കെ എന്നാൽ ഒരു എന്നാൽ ഒരു എന്നാൽ ഒരു പ്രോൺസ് ബിരിയാണി എന്നാൽ ഒരു ഒരു അഞ്ചെണ്ണം വേണേ ആ ആ ഓക്കെ എനിക്ക് മാഡത്തിൻ്റെ സംസാരം നല്ലതായിട്ട് ഇഷ്ടപെട്ടു